ബസ്സ്നേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബസ് നമ്മുടെ കേ എസ് ആ ട്ടീ സി കുഴപ്പം ഇല്ലാത്ത നല്ല ഒരു യാത്രയാണ് പിന്നേ സ്റ്റോപ്പ്കളിൽ ആള് ഇല്ലങ്കിൽ സ്റ്റോപ്പ്കളിൽ കറക്റ്റിൽ നിർത്തത്തൊന്നും ഇല്ല പിന്നെ നിർത്തിയാലും നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അവർ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുകേല പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ഉള്ളതാണ് ബസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം അതായത് നമുക്ക് പ്രൈവറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് ലാഭകരമാണെങ്കിൽ മാത്രമേ ബസ്സ് മുന്നോട്ട് പോവൂ പിന്നെ അവർ ഓടിക്കത്തൊള്ളൂ പക്ഷേ കെ എസ് ആർ ട്ടീ സി അങ്ങനെ അല്ല ലാഭം നോക്കിയല്ല പൊതുജനങ്ങളുടെ താൽപ്പര്യാനുസരണം ടൈം നോക്കിയാണ് ബസ്സ് പോകുന്നത്

എല്ലാം നല്ലരീതീൽ ഒക്കെ ഉണ്ട് എന്നാലും അത്രയ്ക്ക് പോരാ നമുക്ക് എങ്കിലും അതിൻറ്റേതായ ഒരു ഇത് വരുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഇതാണ് പിന്നെ നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് യാത്രാസൗകര്യം നമ്മൾ യാത്രയിൽ ഇഷ്ടംപോലെ സലങ്ങൾ നമ്മൾ കേ എസ് ആർ ട്ടീ സീ ലാണ് പോയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കെ എസ് ആ ട്ടീ സി ബസ്സിൻ്റെ ഇതാകുമ്പോൾ നമുക്കത് അതിൻ്റേതായ ഓരോ കാര്യങ്ങളും ഇതും എല്ലാം നമുക്ക് അതിൻ്റെ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് കേ എസ് ആ ട്ടീ സീ യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതുണ്ട് പിന്നെ മറ്റുള്ള ഇതാകുമ്പം നമുക്ക് സീറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ഇതാണേലും നമുക്ക് കുഴപ്പം ഇല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ നമ്മുടെ ബസ്സ് യാത്ര നമക്ക് ചില ഇപ്പം യാത്രകളിലൊക്കെ നമുക്ക് അതിൻ്റെ ആൾക്കാർക്ക് ചിലപ്പം നമ്മളൊന്ന് സീറ്റ് മാറി കൊടുക്കേണ്ട ഒക്കെ വരും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്യാതെ ഒക്കെ വരുന്നവർക്ക് സീറ്റ് മാറി അതെല്ലാം അങ്ങനെ ഒക്കെ ചെയ്താണ് നല്ല ഒരു യാത്രയിലൊക്കെ ആണ് പോയിരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് മലപ്പുറം അങ്ങനെ ഉള്ള പാലക്കാട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വയ്യാതെ വന്നാൽ നമ്മൾ അത് ചേയ്ഞ്ച് ചെയ്ത് ഒക്കെ കൊടുക്കാറുണ്ട് അങ്ങനെത്തെ ചെയ്ഞ്ചിങ്ങ് ഒക്കെ ചെയ്ത് നമ്മളാണ് യാത്രകളിൽ നമുക്ക് സുരക്ഷിതം എപ്പഴും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുതാണ് നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ നമ്മൾ കാറിലോ ഒക്കെ പോകുന്നതിനേക്കാളും യാത്രാസുഖം ടെൻഷനുമില്ലാതെ നമുക്ക് കേ എസ് ആർ ട്ടീ സി യോ അല്ലെങ്കിൽ മറ്റുള്ള ബസ്സിലോ പോകുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ഇതായിട്ട് തോന്നുന്നു പിന്നെ അതുപോലെ നമ്മുടെ കേ എസ് ആ ട്ടീ സി ഇപ്പം കുഴപ്പം ഇല്ലാതെ പോകുന്നു മറ്റേത് ശമ്പളമില്ല അവർക്ക് അവരുടെ ദുരിതങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാലും അതിൽനിന്ന് ഒക്കെ ഒരു മോചനം ഇപ്പം അവർക്ക് ലഭിച്ചിട്ടൊന്നും പാസഞ്ചർ ബസ്സിന് ആണെങ്കിൽ നമുക്ക് അത് അതിൻ്റെ ഒരു പ്രൈവറ്റ് ബസ് ആണെങ്കിലും പ്രൈവറ്റ് ബസ്സ് പിന്നെ അവരുടെ ലാഭവിഹിതം നോക്കി അവർ സർവീസ്സ്കൾ നടത്തത്തൊള്ളൂ അവരത് അനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവത്തൊള്ളൂ അങ്ങനെ ഒക്കെ ഉള്ള ഒരു ഇച്ചിരി കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടും ട്രാൻസ്പ്പോട്ട് ബസ്സിൻ്റെ ഒരു നല്ല ഇതാണ് നമുക്ക് ഉള്ളത് പിന്നെ നമ്മൾ കിഴക്കോട്ട് ഇപ്പം കട്ടപ്പന കുമളി പിന്നെ അങ്ങോട്ട് ഒക്കെയുള്ള റൂട്ട്കളിലൊക്കെ പോകുമ്പം നമുക്ക് ഒരു ട്രാൻസ്പ്പോട്ട് ബസിലൊക്കെ ഉള്ള യാത്ര നമുക്ക് നമുക്ക് ഒരു ഭംഗിയാണ് ആ ഭംഗി ആസ്വദിച്ച് നമുക്ക് പോവാനുള്ള ഒരു ഇതും ഒക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ഇവിടെ വച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഒരു നല്ല ഒരു യാത്രാ സൗകര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാത്രി ആയാലും പകൽ ടൈമ് ആയാലും മറ്റുള്ള ടൈമുകളിൽ ഏത് ടൈമിലായാലും നമുക്ക് എനിടൈം ഇപ്പം ഉൾപ്രദേശങ്ങളിലേക്ക് വണ്ടി ഇല്ലന്നേയുള്ളൂ നമ്മുടെ നാഷണൽ ഹൈവേകളിലെല്ലാം എപ്പം ചെന്നാലും നമുക്ക് വണ്ടിയുടെ വണ്ടി സുലഭമാണ് എന്നുവെച്ചാൽ പകലത്തേപ്പോലെ സുലഭമല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് നേരം നിന്നാൽ നമുക്ക് കിട്ടും ആ കിട്ടുന്ന രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ആ യാത്ര നമുക്ക് ഇപ്പം രാത്രിയിൽ ആണെങ്കിലും നമ്മൾ ഹൈവേകളിൽപ്പോയി നിന്നാൽ നമുക്ക് ഇപ്പം അടുത്ത ബസ്റ്റാൻറ്റ്കളിൽ ചെന്നെത്താനും അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ബസ്റ്റാൻറ്റിൽ നമുക്ക് എവിടെ പോവേണ്ട് അതിൻ്റെ സമീപത്ത് ആണെങ്കിലും വന്നിറങ്ങാനും നമുക്ക് ബസ്സ്നേപ്പറ്റി നമുക്ക് പറയാനാണെങ്കിൽ അങ്ങനെ ഉണ്ട് അത് കാരണം ബസ്സ് യാത്ര നല്ലത് തന്നെയാണ് ബസ്സിൽ ബസ്സ് പാസഞ്ചർ ബസ്സിന് മറ്റേ ഡ്രൈവർ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പം ഇല്ലാതെ ഉള്ള നല്ല ചെറുപ്പക്കാർ ഡ്രൈവർമാർ ഒക്കെയാണ് കണ്ടക്ടർമാരുടെ പെരുമാറ്റമാണെങ്കിലും നല്ല മാന്യമായിട്ടുള്ളതാണ് ഇതൊക്കെയുള്ളൂ ബസിൻ്റെ ഇത് പറയാനുള്ളൂ